മൺപാത്രമോ നിർമ്മാണം ഒരു കലയെ രൂപിച്ചിട്ടുണ്ട് കാരണം അതിന്റെ വികസനം വികസിച്ചിട്ടുള്ളത് നല്ലോണോ കാരണമോ ഇപ്പം എല്ലാവരും കൂടുതലും ഈ കലകളും അങ്ങനത്തെ മൺപാത്രങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത് അയ് അതിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പം പ്രത്യേകം ഒരു ടേസ്റ്റാണ് അത്കൊണ്ട് കൂടിയാണ് പിന്നെ ഇപ്പം എല്ലാവരും മൺപാത്രങ്ങൾ ചൂസ് ചെയ്യാറുള്ള കാരണം മറ്റ് അലൂമിനിയ പാത്രങ്ങളൊക്കെ ആരോഗ്യത്തിന് പിന്നെ ദോഷം ഉണ്ടാക്കുന്നു പിള്ളേർക്ക് പഠനം ഉള്ളതോണ്ടും മൺപാത്രങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് തുടങ്ങി അപ്പ അത് പിന്നെ വികസിച്ചിത് വരുന്നുണ്ട് മൺപാത്രങ്ങൾ മൺഘടകങ്ങൾ കലങ്ങൾ ഇപ്പം ദോഷക്കല്ലാണേൽ പോലും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ദോശക്കല്ല് യൂസ് ചെയ്യാറുള്ളത് അതിൽ ഉണ്ടാക്കു ഒരു പഴയ ഒരു നാട് അത് ഭക്ഷണത്തിന് പ്രത്യേകം ഒരു ടേസ്റ്റായിരിക്കും ഇപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് വന്നോണ്ട് മൺപാത്രം നിർമ്മാണം വികസിച്ച് വരുന്നുണ്ട് ഇപ്പം എല്ലാവരും അതിലേക്ക് കൂടുതൽ ആകർഷിച്ച് വരൂ